ഞങ്ങളുടെ അടുത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസി മേഖലകൾ ഒരുപാടുണ്ട് എൻ്റെ ഇവിടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പാത്രച്ചാലെന്ന് പറഞ്ഞ ഒരു കോളനിയാണ് അത് ഫുള്ള് അവരുടെതായ സ്ഥലങ്ങളാണ് അതായത് അവർക്ക് ഗവൺമെൻറ് കൊടുത്ത സ്ഥലങ്ങളാണ് പാത്രച്ചാൽ കോളനി എന്ന് പറയുന്ന സ്ഥലങ്ങൾ മുഴുവനും പിന്നെയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥലവും ആയിട്ട് ബന്ധപ്പെടുത്തുമ്പോളെന്നു വെച്ചാൽ അവരുടെ കുറച്ച് ഉള്ളേരിയ ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളേക്കാളും ഒരുപാട് സുഖമായിട്ടാണ് അവർ ജീവിക്കുന്നത് അവർക്കെല്ലാം ഫ്രീ ആണ് ഇപ്പം ഇവിടെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് വരെ അതായത് ഇപ്പം റോസ് കാർഡ് നീല കാർഡൊക്കെയാണ് കൊടുക്കുക അതായത് വളരേ പാവപ്പെട്ടവർക്ക് അതായത് മഞ്ഞ കാർഡ് കിട്ടേണ്ടവർക്ക് വരെ ഇതാണ് കൊടുക്കുക അവർ പൈസ കൊടുത്തിട്ടാണ് അരി മേടിക്കുക അതൊക്കെ വെച്ച് നോക്കുമ്പോളെനു വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസികൾ ഇപ്പോൾ സുഖ സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് വീടിന് വീട് സ്ഥലത്തിന് സ്ഥലം ഗ്യാസിന് ഗ്യാസ് ഗ്യാസൊക്കെ അവർക്ക് ഫ്രീയാണ് പിന്നെ അരി പിന്നെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഓണം വിഷുവെന്നൊക്കെ വരുമ്പോൾ അവർക്ക് കിറ്റ് ഒരുപാട് വലിയ കിറ്റ് അവർക്ക് മാസം മാസമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഏറ്റവും സുഖമായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഏറ്റവും സുഖമായിട്ട് ഇപ്പം ജീവിക്കുന്നത്